മൊബൈൽ ഫോണും ടീ വീടെ ഉപയോഗം കൊണ്ട് കുട്ടികൾ വളരെയധികം ശാരീരികോം മാനസികോമായ ബുദ്ധികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പഴയ കാലങ്ങളിൽ മൊബൈൽ ഫോണോ ടീ വീമി ഇല്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് കുട്ടികൾ വിശ്രമ സമയങ്ങൾ ചിലവഴിക്കുന്നത് കൂട്ടുകാരുമൊത്തും വീട്ടിലുള്ളവരുമായി സംസാരിച്ചുമായിരുന്നു പക്ഷേ കുട്ടികളുടെ വിശ്രമ സമയങ്ങളെ ഇന്ന് കയ്യിൽ എടുത്തിരിക്കയാണ് മൊബൈൽ ഫോണും ടീ വീം പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ അതിലൂടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവർക്ക് കാണുവാൻ സാധിക്കുന്നു അതിലൂടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പലരുമായുള്ള സൗഹൃദം കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുവാനും സഹായിക്കുന്നു വഴിയാക്കുന്നു അത് കൗൺസിലിങ്ങിലൂടേം പലവിധ ഇതിലൂടേം മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് പക്ഷേ കുട്ടികൾ ഇതിലൂടെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഉറക്കക്കുറവ് അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ് ഇതെല്ലം ഇതിലേറെ മോശം മോശവശങ്ങളാണ് പക്ഷേ ഇതീന്ന് ഗുണങ്ങളും നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട് കാര്യം നമ്മളിവിടെന്ന് ലോകത്തും എങ്ങുമുള്ള ആളുകൾ പറയുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിരൽത്തുമ്പ്കളിൽ എത്തുന്നു പക്ഷേ നേരത്തേ ഇതിനൊന്നും സാധിച്ചില്ല എന്തെങ്കിലും സംഭവമുണ്ടായാൽ രണ്ടും മൂന്നും ദിവസങ്ങൾ കഴിയണമായിരുന്നു നമ്മളിലേക്കെത്തുവാൻ പക്ഷേ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിൽ എല്ലാം വന്ന് ചേരുന്നതാണ് ഇതിനെ ഗുണങ്ങളും ദോഷങ്ങളും മനസിലാക്കുക അതാണ് നാം പ്രാധമികമായി ചെയ്യേണ്ടത് ഇതിനെ ദോഷം ഇതിനെ നല്ല വശങ്ങൾ മനസിലാക്കി അത് പരിഗണിച്ച് അതിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇതിലൂടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ് പല കുട്ടികളിലും ഇതിന് ആത്മഹത്യ പോലുള്ള പ്രേരണകളിലേക്ക് ഈ മൊബൈൽ ഫോൺൻ്റെ ഉപയോഗം നയിക്കുന്നു തെറ്റായ രീതിയിൽ ഇതിനെ എടുക്കുന്നവരുമുണ്ട് പക്ഷേ അതിന് നല്ല വശങ്ങൾ നാം എപ്പോഴും മനസിലാക്കാൻ സാധിക്കുക കുട്ടികളിലെ പഠന മികവിനെ നിരുത്സാഹപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഓൺലൈൻ പഠനം കൂടി വരുന്നൊരു സമൂഹമാണ് നമ്മുടേത് മൊബൈൽ ഫോണില്ലാത്ത ഒരു ജീവിതം കുട്ടികൾക്കിപ്പോൾ ആലോചിക്കാൻ പോലും കഴിയുകയില്ല ആ സാഹചര്യമാണ് മാറേണ്ടത് അവരുടെ വിനോദ സമയങ്ങളിലെ അവരുടെ കൂട്ടുകാരുമൊത്ത് ചിലവഴിക്കാൻ കൂടുതൽ സഹായകരമാകണം അവരുടെ കൂട്ടുകാരുമൊത്തും എങ്ങനേം നല്ല സമയങ്ങളുണ്ടാക്കാം എങ്ങനെ നല്ല നല്ല ഓർമ്മകൾ സമ്പാദിക്കാമെന്നായിരിക്കണം കുട്ടികളുടെ ഓരോരുത്തരും കുട്ടികളിലെ ചിന്തകൾ ഉണ്ടാവേണ്ടത് നല്ല ഓർമ്മകൾ എന്നും നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷിതമായ മുതൽ കൂട്ട്കളാണ് നല്ല ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നോക്കി കാണുക എന്താണ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്നും നമുക്കായി നൽകിയിരിക്കുന്ന മനോഹാരമായ ദൈവത്തിൻ്റെ ദാനമാണ് ഇതിനെയെല്ലാം പരിഗണിച്ച് നാമെല്ലാവരും മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കണം അതിൽ മൊബൈൽ ഫോൺണോ മറ്റ് സമൂഹം മാധ്യമങ്ങൾക്കോ മുന്നിൽ കീഴടങ്ങേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നമ്മുടെ ജീവിതം എന്തായിരിക്കണമെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെ ദുരുപയോഗങ്ങൾ കുറച്ച് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കുക